എൻ്റെ പ്രദേശത്ത് ബിസിനസ്സ് പ്രവർത്തനം നടത്താനായിട്ട് ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ നിരവധി നിരവധി ഉണ്ട് കോട്ടയം ജില്ലയിൽ പാല എന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് അതുപോലെതന്നെ എല്ലാവരും കേട്ടിരിക്കുന്നതുപോലെ തന്നെ റബ്ബറിൻ്റെ നാടാണ് പാല കാഞ്ഞിരപള്ളിയൊക്കെ അപ്പോൾ റബ്ബറിന് നല്ല വില കൂടിയ മണ്ണാണ് പാല പാല മാത്രമല്ല ഈ ഏഴു വർഷം കോട്ടയം ജില്ല മുഴുവനും എന്നാലും ഇപ്പോൾ റബ്ബറിനു പേരുകേട്ട നാടെന്നു പറയുന്ന പാലയും കാഞ്ഞിരപ്പള്ളിയും ഇതൊക്കെ തന്നെയാണ് പരമ്പരാഗതമായി ഞങ്ങളുടെ സ്ഥലത്ത് താമസിക്കുന്നവരും റബ്ബറും കൃഷിയും ഞങ്ങൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ വൻ ലാഭം കൊയ്ത കൃഷിവിഭവമായിരുന്നു റബ്ബർ ഇപ്പോൾ ഒരു രണ്ടായിരത്തിനൊക്കെ ശേഷം രണ്ടായിരം അല്ല രണ്ടായിരത്തി പത്തിനൊക്കെ ശേഷം മലബാറിൻ്റെയൊക്കെ വില വലിയ തോതിൽ കുറഞ്ഞു കുറവും കുറവും ഇപ്പോൾ നഷ്ടമാണെന്നുതന്നെ പറയാം വൻ നഷ്ടമാണ് ഇപ്പോൾ ഒരു മിനിമം ഒരു മുന്നൂറ് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ലാഭം ഉള്ളു അപ്പം റബ്ബർ കൃഷിയൊക്കെ ഇപ്പോൾ മുന്നൂറ് മുന്നൂറ് പോയിട്ട് ഇരുന്നൂറുപോലും ഇപ്പോൾ ഇപ്പൊയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പം ഈ പ്രദേശത്തൊക്കെ കൂടുതൽ ഇപ്പോൾ ആൾക്കാരും റബ്ബറൊക്കെ വെട്ടികളഞ്ഞ് പൈനാപ്പിളിലോട്ടൊക്കെ നീങ്ങിത്തുടങ്ങി എന്നാലും പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചോളം ഒരു ഒന്ന് രണ്ടേക്കർ റബ്ബർ കൃഷിയുള്ളതാണ് എനിക്കങ്ങോട്ട് പെട്ടെന്ന് ഈ വെട്ടിമുറിച്ച് കളയാൻ തോന്നുന്നില്ല ആ ഒരു റബ്ബറിനൊരു സെൻ്റിമെൻ്റൽ ഒരറ്റാച്ച്മെൻ്റുണ്ട് എൻ്റെ എൻ്റെ അപ്പനായാലും എൻ്റെ വലിയപ്പനായാലും ഇതേ റബ്ബർ കൃഷി ഞാൻ ചെയ്ത് ചെയ്തു വന്നത് അതുകൊണ്ടുതന്നെ പെട്ടന്നങ്ങോട്ട് കളയാൻ തോന്നുന്നില്ല അതു മാത്രമല്ല റബ്ബറിന് ഒരു അഞ്ചിൽ അഞ്ച് പത്തു വർഷങ്ങൾക്കുള്ളിൽ റബ്ബറിൻ്റെ വില കൂടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചാൻസ് വളരെ കുറവാണെങ്കിലും അറിയാം മറ്റേ സിയാചിൻ സിയാചിൻ കരാർ പ്രകാരം മറ്റേ മലേഷ്യയിൽനിന്ന് റബ്ബർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽപ്പോലും ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് ഞങ്ങൾ കോട്ടയം മെഡിക്കൽ സൈഡിലുള്ള എല്ലാവരും റബ്ബറിനെ ആശ്രയിച്ചാണ് ജീവിച്ചു വന്നിരുന്നത് പെട്ടന്നിതെല്ലാം എടുത്തു കളയുകയെന്നു വെച്ചാൽ അത്ര അത്ര നടക്കുന്ന കാര്യമൊന്നും അല്ല നമ്മളൊരഞ്ച് പത്തു വർഷത്തിനുള്ളിൽ വീണ്ടും റബ്ബറിനു വില കൂടുമെന്നാണ് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതെത്രത്തോള്ളം നടക്കുമെന്ന കാര്യം സംശയമാണ് കാര്യമെന്നു വെച്ചാൽ നാച്ചുറൽ റബ്ബറിൻ്റെ ഉപയോഗം വളരെ വലിയ തോതിൽ കുറഞ്ഞു കുറഞ്ഞു കമ്പനിയിൽ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുമ്പം എല്ലാവരും സിന്തെറ്റിക്ക് റബ്ബറാണ് യൂസ് യൂസ് ചെയ്യുന്നത് ഞാൻ ഈ കഴിഞ്ഞിടയ്ക്കൊരു റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻ്റെ ഒരു പ്രസ്ഥാവന കേട്ടു ഇപ്പോൾ അറുപതു ശതമാനം സിന്തറ്റിക് സിന്തറ്റിക് റബ്ബറാണ് റബ്ബറാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഏകദേശം അറുപത് ശതമാനത്തോളം അതായത് നാച്ചുറൽ റബ്ബറിൻ്റെ ഉപയോഗം അറുപത് ശതമാനം കുറഞ്ഞു ഒരു നാല്പത് ശതമാനം മാത്രമാണ് ഇതു ചെയ്യുന്നത് അത് അതിൽതന്നെയും കേന്ദ്രഗവൺമെൻ്റിൻ്റെ അനുസരിച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്നാണ് കൂടുതലും റബ്ബർ അവർ ഈ റബ്ബർ അവർ അവർ എടുക്കുന്നത് കേരളം പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബറ് ഉല്പാദിപ്പിക്കുന്നത് കേരളത്തിൽ നിന്നാണ് കേരളത്തിൽ കേരളം കേരളത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം റബ്ബറും ഉല്പാദിപ്പിക്കുന്നത് കോട്ടയം കോട്ടയം ഇടുക്കി ജില്ലയിൽ വെച്ച് കോട്ടയം ഇടുക്കി ജില്ലയിൽ നിന്നാണ് വെറും രണ്ടു ജില്ലയിൽ നിന്നാണ് ഇത്രയും ഈ ഒരു ഒരു ഒരു കേരളത്തിൽ നിന്നുതന്നെ വലിയ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം തന്നെ പറയാം ബാക്കി പിന്നെ വയനാട്ടിലും അതുപോലെയുള്ള സ്ഥലങ്ങളിത് മാത്രമേ ഉള്ളു

ഈ രണ്ടു ജില്ലയിലാണ് ഇത്ര റബ്ബറ് ഉൽപാദിപ്പിക്കുന്നത് വലിയതോതിൽ ബിസിനസ്സിന് സാധ്യതയുള്ള സ്ഥലമാണ് സർക്കാരുംകൂടി ഒന്നു കനിഞ്ഞാൽ വലിയ രീതിയിൽ മറ്റു റബ്ബർകൊണ്ട് മറ്റു ഉൽപാദനങ്ങളിൽ ഉൽപാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പനികൾ കൂടി വന്നാൽ വലിയ തോതിൽ ബിസിനസ്സിന് സാധ്യതയുള്ള മണ്ണാണ് കോട്ടയം എന്നു പറയാം കോട്ടയം പാലയെന്നു പറയുന്നത് പക്ഷെ കാലാകാലങ്ങളായി ഈ കേന്ദ്രസർക്കാരും സംസ്ഥാന സർക്കാരും റബ്ബറിൻ്റെ കാര്യത്തിൽ ഒരു വൻതോതിലൊരു അവഗണനയാണ് ഇതു ചെയ്യുന്നത് എന്തു ചെയ്യാനാണ് എല്ലാം ഇങ്ങനെയാണ് ഇന്ന് വിലകൂടും നാളെ വിലകൂടും എന്നും പറഞ്ഞ് നമ്മളെല്ലാം ഇരിക്കുന്നു പക്ഷെ ഒന്നും ഇതാവുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെതന്നെ ഒരഞ്ച് ഒരഞ്ച് പത്തു വർഷത്തിനുള്ളിൽ തന്നെ വില കൂടും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു